ഇന്നത്തെ തലമുറയിലെ കുട്ടികള് സ്റ്റാമ്പുകള് ശേഖരിക്കാറുണ്ട് നാണയങ്ങള് ശേഖരിക്കാറുണ്ട് അതുപോലെ തന്നെ മാഗ്നെറ്റുകള് കളിപ്പാട്ടങ്ങള് കാറുകള് ഇവയൊക്കെ ശേഖരിക്കാറുണ്ട് പക്ഷേ ഇവർക്ക് ഇന്നു മറ്റ് പണ്ടത്തെ കാലത്തേക്കാളിലും ഏറ്റവും കൂടുതല് ഇലക്ട്രോണിക് സംബന്ധമായ കാര്യങ്ങളില് ഉള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവര് ശേഖരിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കാരണങ്ങള് പാവകളായാലും എന്തായാലും കാരണം ഇന്ന് ഇലക്ട്രോണിക് യുഗങ്ങളാണ് പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ തലമുറ പോയ്ക്കൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് നമുക്ക് ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു കാര്യങ്ങള് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഉദാഹരണത്തിനു പറഞ്ഞാല് ഒരു ടി വി കണ്ടുപിടിച്ച് എത്രയോ വർഷങ്ങൾക്കുശേഷമാണ് നമ്മള് ടി വിയുടെ ഉപയോഗം നമ്മള് കണ്ടത് വർഷങ്ങൾ വളരെയധികം കഴിഞ്ഞതിനു ശേഷമാണു വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതു കണ്ടുപിടിച്ചതിൻ്റെ ടി വി നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ റേഡിയോ കണ്ടുപിടിച്ച് വർഷങ്ങൾക്കുശേഷമാണ് അതു നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതല്ല മറ്റു രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചാൽ ഒന്നോ രണ്ടോ വർഷത്തിനകം തന്നെ നമ്മുടെ രാജ്യത്ത് അതു സുലഭമായി കിട്ടുന്ന ഒരവസ്ഥയിലേക്കു വന്നു ടി വി ആയാലും ഫ്രിഡ്ജായാലും എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും കമ്പ്യൂട്ടര് മുതല് എല്ലാ സാധനങ്ങളും അതു വന്നു അതുപോലെ ഇന്ന് ഇലക്ട്രോണിക് യുഗമാണ് ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞ കാലം കൊണ്ടു തന്നെ ലോകം മുഴുവനും ആയി ഇന്ന് ഏത് മനുഷ്യര്ക്കും നിത്യോപയോഗ സാധനമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോണ് അതിൻ്റകത്ത് പ്രായപരിധികളില്ല വർണ്ണ വ്യത്യാസങ്ങളില്ല അതുപോലെ തന്നെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇന്ന് ഓരോ മനുഷ്യൻ്റെ അവിഭാജ്യഘടകമായി മൊബൈൽ ഫോൺ മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഉള്ള ഇലക്ട്രോണിക് തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്നു നാം ജീവിക്കുന്നത് അതുപോലെ അത് ആ കാരണങ്ങൾ കൊണ്ടു തന്നെ ഇന്ന് ഇലക്ട്രോണിക്കിൻ്റെ ഉപയോഗ രൂപത്തിലുള്ള ശേഖരണങ്ങളും മറ്റു കളിപ്പാട്ടങ്ങളും ശേഖരിക്കാനാണ് കുട്ടികളും ഓരോ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് പഴയതുപോലെ സ്റ്റാമ്പുകൾ ശേഖരിക്കാൻ ഇന്നത്തെ കാലത്തു സാധിക്കില്ല കാരണം ഇന്ന് സ്റ്റാമ്പുകളുടെ ഉപയോഗം എഴുത്തു കുത്തുകളുടെ ഉപയോഗം വളരെ കുറവായതു കാരണംകൊണ്ട് സ്റ്റാമ്പുകളുടെ ഉപയോഗം വളരെ കുറവാണ് സ്റ്റാമ്പുകൾ കിട്ടാനില്ല ആ അവസ്ഥയില് മറ്റു നാണയങ്ങൾ ശേഖരിക്കുന്നവര് ഉണ്ട് ഓരോ രാജ്യത്തെയും നാണയങ്ങൾ നാണയങ്ങൾ ശേഖരിച്ചുവയ്ക്കുന്ന ഒത്തിരി കുട്ടികൾ ഇന്നുണ്ട് അധികവും കുട്ടികൾക്കാണ് ഇതു ശേഖരിച്ചുവയ്ക്കാൻ താല്പര്യം ഒരു പ്രായപരിധി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നാണയങ്ങൾ ശേഖരിക്കുന്നതിനോടോ അതുപോലെ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നതിനോടോ ആരും താല്പര്യം കാണിക്കാറില്ല അത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവര് ആ സെക്ഷനിൽ നിന്നു മാറിപ്പോകും ഏറ്റവും കൂടുതല് ഇതൊക്കെ ശേഖരിക്കുന്നതു കുട്ടികൾ തന്നെയാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകതകള് അവരുടെ രാജ്യത്തിൻ്റെ പതാകകള് അവിടത്തെ രാഷ്ട്രീയ നേഗതാക്കന്മാരുടെ മുഖങ്ങള് ഇതൊക്കെ ഓരോ സ്റ്റാമ്പിലും കാണാറുണ്ട് അതുപോലെ ഓരോ നാണയത്തിലും നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ഓരോ രാജ്യത്തും അവരുടേതായ അന്നത്തെ ഭരണാധികാരികളുടെ രാഷ്ട്രത്തലവന്മാരുടെ പേരുകള് കൊത്തിവച്ച നാണയങ്ങള് ഉണ്ട് അതു ശേഖരിക്കുക വഴി പല കാരണങ്ങളാണ് ഓരോ നാണയം ഓരോ രാജ്യത്തെ പ്പറ്റി ഓരോരുത്തർക്കു മനസ്സിലാക്കുവാനും അവിടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖം മനസ്സിൽ നിന്നും മായാതെ സൂക്ഷിക്കാനും ആ നാണയ ശേഖരണംകൊണ്ടു കഴിയും അതുപോലെ ആ സ്റ്റാമ്പ് ശേഖരങ്ങൾ കൊണ്ടുതന്നെ കഴിയും അതുപോലെ കളിപ്പാട്ടങ്ങള് ഇന്ന് ആൾക്കാര് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങള് ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളാണ് മറ്റു കാര്യങ്ങള് വളരെ ഏത് അതുപോലെ ഇന്ന് കാറുകൾ യുവ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാറുകള് ബൈക്കുകള് ഇതൊക്കെയാണ് അതുകൊണ്ട് യുവാക്കള് യുവതികള് ഇന്ന് പണ്ടൊക്കെ യുവാക്കന്മാര് മാത്രമായിരുന്നു ബൈക്ക് ഓടിക്കുന്നതും കാർ ഓടിക്കുന്നതൊക്കെ ഇന്ന് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ യുവതലമുറകള് ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ് അതൊരു നല്ല മാതൃകയാണ് ആ മാതൃകയെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു ഈ സമത്വം എന്നു പറയുന്നതു വാക്കില് മാത്രം പോരാ പ്രവൃത്തിയിലും വേണം അതു രാഷ്ട്രീയത്തിലായാലും പൊതുരംഗത്തായാലും വീട്ടിലായാലും ആണും പെണ്ണും വ്യത്യാസമില്ല അത് പ്രകൃതിനിയമമാണ് ആണും പെണ്ണും അതിനെ വേർതിരിച്ച് പെണ്ണിന് കഴിവു കുറവാണെന്നും ആണിന് കഴിവു കൂടുതലുണ്ടെന്നും ഉള്ള വ്യത്യാസം ശരിയല്ല ഇന്നു പല മേഖലകളിലും പുരുഷന്മാർ എത്തിപ്പടിക്കുന്ന എല്ലാ മേഖലകളും സ്ത്രീകള് കൈയടക്കിയിട്ടുണ്ട് അതില് ഒരു പരിധി വരെ ഈ തലമുറ വിജയിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാകണമെന്നാണ് എൻ്റെ അഭിപ്രായം